ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾക്ക് ശേഷം ഇൻഡ്യയില് ഈ ആയുർദൈർഘ്യം വർദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യവും ആയിട്ട് കംപയറ് ചെയ്ത് നോക്കുക ആണ് എങ്കിൽ ഒരു വലിയ വർദ്ധന ആയുർദൈര്ഘ്യത്തിൻ്റെ വർദ്ധന നമ്മള് പറയുന്ന രീതിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല അതിൻ്റെ അതിൽ നിരവധി കാരണങ്ങൾ ഉണ്ട് കാരണം ആയുസ്സ് ദൈർഘ്യം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രക്രിയകളെയും ശരീ നമ്മള് കഴിക്കുന്ന ആഹാരം നമ്മൾക്ക് നമുക്കുണ്ടാകുന്ന മെഡിക്കൽ പരിരക്ഷ ഇതെല്ലാം പൊതുജന ആരോഗ്യം നമ്മൾക്ക് തരുന്ന ഒരു ഒരു സേവനം അതായത് സർക്കാർ ഗവൺമെൻറ്റ് തലത്തിൽ പുതിയ ആരോഗ്യകേന്ദ്രങ്ങൾ വഴി നമുക്ക് കിട്ടാവുന്ന പരിശീലനങ്ങള് അതുപോലെ തന്നെ മെഡിസിനുകള് ഇതൊക്കെ ഈ ആരോഗ്യരംഗത്ത് വലിയ ഒരു മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം വച്ച് നോക്കുമ്പോൾ ആ പിന്നെ ആഹാരം ആഹാരം നമ്മള് പണ്ടൊക്കെ നമ്മള് കഴിക്കുന്ന ആഹാരം നമുക്ക് നാച്ചുറലായിട്ട് നമ്മള് നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നുമൊക്കെ ഉല്പാദിപ്പിച്ച് അതിൽനിന്നും നല്ല വിഷാംശം ചേരാത്ത ആഹാരമായിരുന്നു നമ്മൾ കഴിച്ചിരുന്നത് ഇപ്പോഴതല്ല അത്കാരണം നമ്മൾക്ക് കൃഷിയൊക്കെ പഴയത് പോലൊന്നും നടക്കുന്നില്ല അതുപോലെ തന്നെ വിഷാംശങ്ങളില് ഒക്കെ നമ്മള് കൂടുതലടിച്ച് ഈ കൃഷിയെ ഒക്കെ പ്രോത്സാഹിപ്പിച്ച് അതിൻ്റെ ഫലങ്ങളാണ് നമ്മളെടുത്ത് ഉപായോഗിക്കുന്നത് അത് നമ്മുടെ ആരോഗ്യത്തെ വളരെ ഹാനികരമായിട്ട് ബാധിച്ചിട്ടുണ്ട് അതുമൂലം അതുമൂലം നമ്മുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം പണ്ടൊക്കെ നൂറ് വയസ്സും തൊണ്ണൂറ് വയസ്സും ഒക്കെ ജീവിച്ചിരുന്നവര് ഇപ്പോൾ അവര് വളരെ അറുപത് എഴുപത് എൺപത് വയസ്സുകളില് ഒക്കെ പെട്ടെന്ന് രോഗിയായി മരണത്തെ മരണത്തിലേക്ക് പോകുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം പറ യാതൊരു കാരണവശാലും ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾക്ക് ശേഷം കാര്യമായ വർദ്ധനയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അതുപോലെ തന്നെ ലോകാരോഗ്യസംഘടനയുടെ പഠനം വച്ചും നമ്മളുടെ ഈ ആയുസ്സ് ദൈർഘ്യം ഇപ്പോഴത്തെ ലെവൽ വച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് എന്നു നമുക്ക് കാണുവാൻ സാധിക്കും പ് പലം കാരണം പണ്ടത്തെപോലെ അല്ല ഇപ്പോള് രോഗങ്ങള് പല തരത്തിലുള്ള വൈറസുകള് ഇതെല്ലാം ബാധിച്ച് മനുഷ്യനെ ഈ ആരോഗ്യം പരമായിട്ട് മനുഷ്യൻ്റെ കഴിവുകള് കുറയ്ക്കുവാൻ ആണ് സാധിക്കുന്നത് കാരണം മെഡിസിനുകളൊക്കെ നമ്മളൊക്കെ ഒരു പരിധിവരെ നമുക്ക് രോഗങ്ങളെ പ്രതിരോധിക്കുമായിരിക്കും പക്ഷെ അത് നമ്മളുടെ യഥാർത്ഥ ആരോഗ്യത്തെയാണ് ബാധിക്കുന്നതെന്നു നമ്മളഅ മനസ്സിലാക്കണം ഇതാണ് ആരോഗ്യമേഖലയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്